ഇപ്പോൾ കേരളത്തിലെ പ്രധാന കളികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും ക്രിക്കറ്റ് കളിക്കുന്നവരുണ്ട് അപ്പോൾ ക്രിക്കറ്റിൽ എന്നുപറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമ്പർ വൺ കളിയാണ് ക്രിക്കറ്റ് അപ്പോൾ നല്ല രീതിയിൽ കളിക്കാനും കാര്യങ്ങൾക്കൊക്കെ ക്രിക്കറ്റ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ക്രിക്കറ്റ് കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാൾ ഒരു സ്ഥലത്ത് നിന്നും ബോൾ എറിഞ്ഞു കഴിഞ്ഞാൽ അപ്പുറതെന്ന് ഒരാൾ ബാറ്റ് വെച്ച് അടിക്കുക അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലായിട്ടും ചെയ്യുന്നത് അപ്പോൾ നല്ല രീതിയിൽ കളിക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോളാണ് ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ ബോൾ വെച്ചിട്ട് അങ്ങോട്ടുമിങ്ങോട്ടും തട്ടുക അങ്ങനത്തെ കാര്യങ്ങൾ ആണ് കൂടുതലായിട്ടും ചെയ്യുന്നത് പിന്നെ ടെന്നീസ് ഉണ്ട് ടെന്നീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ എന്താ പറയാ നമ്മൾ ഷട്ടിൽ ബാറ്റ് കളിക്കുന്ന പോലെ അങ്ങോട്ടുമിങ്ങോട്ടും കളിക്കുന്ന കളിയാണ് ടെന്നീസ് പിന്നെ ക്രിക്കറ്റ് കേരള കേരളയിലെ നമ്മളെ അസോസിയേഷനും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ കേരളത്തിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പല രീതിയിലുള്ള കളിക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേരളത്തിൽ ഇപ്പം മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ ജെൻസിന്റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജു സാംസൺ ആണ് പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഒരു മിന്നുമണി എന്നു പറഞ്ഞിട്ടൊരാൾ ഇപ്പം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ തന്നെ കയറിയിട്ടുണ്ട് അങ്ങനെ പലരീതിയിലുള്ള അസോസിയേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്